ഹലോ ചന്ദ്ര ട്രാവൽ ഏജൻസി അല്ലേ ആ ഞാൻ ഇന്നലെ ഇങ്ങളെ വിളിച്ചിട്ട് ഒരു മൂന്നു മണിക്ക് ഒരു ക്യാബ് വേണമെന്ന് പറഞ്ഞീന് ആ കൃത്യം മൂന്നു മണിക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞീന് പക്ഷേ ഇങ്ങള് എത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ ലേറ്റ് ആയത് ഞാനത് തമാശക്ക് പറഞ്ഞതൊന്നുമല്ലല്ലോ എനക്ക് ആ സമയത്ത് ആവശ്യമുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് പക്ഷേ ഇങ്ങള് എത്തിയിട്ടില്ല ഇനി ഇങ്ങക്ക് എന്തെങ്കിലും കാരണം ലേറ്റ് ആകാൻ ഉണ്ടെങ്കിൽ അത് ഇങ്ങള് എന്നെ വിളിച്ച് അറിയിച്ചിനോ അങ്ങനെ ചെയ്യേണ്ടതല്ലേ നിങ്ങൾക്ക് ലേറ്റ് ആയാൽ അതിൻ്റെ ഒരു കാരണം നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതല്ലേ ഞാൻ മൂന്നു മണിയാകുമ്പോഴേക്കും റെഡിയായിട്ട് ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്നതാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി നിന്നു അതുമല്ല പിന്നെ എനക്ക് ടെൻഷനാകാൻ തുടങ്ങി അതെന്തു കൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും നിങ്ങൾ വരുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ആക്സിഡൻ്റോ എന്തെങ്കിലും അപകടം പറ്റിയോ എന്നുള്ള ഒരു പേടിയായി ഞാൻ ഇങ്ങനെ പേടിച്ചു നിക്കാന്ന് നിങ്ങൾ വരുന്നതും കാണുന്നില്ല ഇതെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുന്നതല്ലേ നിങ്ങൾ ഒരു കൃത്യനിഷ്ഠത ഇല്ലായ്മയല്ലേ ഇതിനെല്ലാം കാരണം ഇനി അതുമാത്രമല്ല നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ല എന്നല്ല എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു വണ്ടി വിടേനു എൻ്റെ അടുത്തു വേറൊരു വണ്ടി വിടേനു ഒരു വേറൊരു വണ്ടിക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒന്നുമല്ല നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് വണ്ടികൾ ഉണ്ടാകുമല്ലോ ഏതെങ്കിലും ഒരു വണ്ടി ആ ടൈമിന് വിട്ടാലും മതിയേനു പക്ഷേ അത് നിങ്ങൾ ചെയ്തില്ല ഞാൻ എനിക്ക് ഒരു മീറ്റിംഗിന് പോണ്ടീട്ടാന്ന് ഞാൻ ഇങ്ങളോട് വരാൻ പറഞ്ഞത് പക്ഷേ നിങ്ങൾ വരാത്തതു കൊണ്ടു തന്നെ ഞാൻ വേറൊരു വണ്ടി വിളിച്ച് ആ മീറ്റിംഗുള്ള സ്ഥലത്ത് എത്തുമ്പോലേക്കും മീറ്റിംഗ് പകുതിയായി പിന്നെ ഞാൻ ലേറ്റ് ആയി ഞാൻ അവരുടെ മുമ്പിൽ കൃത്യനിഷ്ഠയില്ലാത്ത ഒരാളായിട്ട് മാറി ഇതെല്ലാം ആരെ കൊണ്ടാണ് സംഭവിച്ചത് നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ഏജൻസിയിൽ വിശ്വസിച്ചിട്ടാന്ന് ഞാൻ ഇങ്ങളെ വിളിച്ചിട്ട് വരണം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് നിന്ന് തീർത്തും നിരാശയാണ് ഉണ്ടായത് നിങ്ങളുടെ കൃത്യനിഷ്ഠത ഇല്ലായ്മ അത് എൻ്റെ എൻ്റെ ജോലിയെയും കൂടി ബാധിച്ചു എനക്ക് ആ മീറ്റിംഗിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ഒന്ന് വിളിച്ച് അറിയിക്കുകയോ അല്ലേൽ വേറൊരു വണ്ടി വിടുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂലേനു നല്ലൊരു ഏജൻസിയാന്ന് കൃത്യനിഷ്ഠത ഉള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് പക്ഷേ എനക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് സോറി അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ വിളിക്കില്ല നിങ്ങളെ ഈ വണ്ടി റദ്ദാക്കി ഞാൻ ഇനി നിങ്ങളെ വിളിക്കുന്നില്ല ഓക്കെ